എനിക്കൊരു സഹോദരിയാണുള്ളത് അദ്ദേഹം പോളിടെക്നിക്ക് ഡിപ്ലോമ ചെയ്ത് കൊണ്ടിരിക്കുവാണ് പ്രിൻറിംഗ് ടെക്നോളജിയിൽ ഞങ്ങൾ തമ്മിൽ സാമ്യതയും അസാമ്യതയും ഏറെ ഉണ്ട് സാമ്യതകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് അസാമ്യതകൾ പറയുന്നതാണെന്ന് തോന്നുന്നു കാരണം എനിക്ക് പെട്ടന്ന് തോന്നീട്ടുള്ളത് ആള് ഭയങ്കര ബോൾഡാണ് എന്ത് കാര്യവും പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ പെട്ടന്ന് ഏത് വിധേനയും അവളുദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ് അതുപോലെ പെൺകുട്ടി സാധാരണ പെൺകുട്ടികൾക്ക് സാധാരണ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിധം ഉള്ളൊരു സമുദായിക സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വന്നുവെങ്കിലും ആണിനും പെണ്ണിനും തുല്യ നീതിയും തുല്യ സമത്വവും ഉറപ്പാക്കുന്ന ഒന്നായി കണക്കാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷെ ഞാൻ എനിക്കിതിനെ നിലപാടുകളോട് വ്യത്യാസമല്ല പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങള് ചെയ്യാനൊള്ള അദ്ദേഹത്തിൻ്റെ പിറകിലാണ് കാരണം പൊതുവായി സമൂഹമായി ബന്ധപ്പെട്ടേണ്ട സംസാരിക്കേണ്ട ചില വിഷയങ്ങളിൽ ഞാൻ എനിക്ക് കംഫോർട്ട് സോണിലുള്ള ആളുകളോട് മാത്രമേ ആണ് സംസാരിക്കോള്ള് കാരണം സ്ത്രീ ജനങ്ങളുമായി അതായത് പെൺകുട്ടികളുമായി ജൻഡർ വ്യത്യാസമുള്ള ആളുകളോടുമായി സംസാരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ഇന്ട്രോവെർട്ടിസം കൊണ്ടാണോ എന്താണന്ന് എനിക്കറിയില്ല അതുപോലെ ആ ഒരു തരം തിരിവ് എൻ്റെ സഹോദരിക്കില്ല ഏത് കാര്യവും എന്താണെങ്കിലും അത് ജൻഡർ വ്യത്യാസം നോക്കാണ്ട് കാര്യങ്ങള് തുറന്നടിച്ച് സംസാരിക്കാനുള്ള ഒരു ഗട്ട്സ് അദ്ദേഹത്തിനുണ്ട്

അതുപോലെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണുക അങ്ങനത്തെ ഒരു താൽപര്യമുള്ള കൂട്ടത്തിലാണ് അദ്ദേഹവും അപ്പം ഞങ്ങള് തമ്മിലുള്ള ആ ഒരു ബോണ്ട് നല്ലൊരു ബോണ്ടാണ് കാരണം ഫാമിലി കഴിഞ്ഞേ ഉള്ളൂ മ മറ്റ് പല ഭൗതീക കാര്യങ്ങളും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പോയ്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനിടയിൽ മറ്റ് പല കലഹങ്ങളും പ്രശ്നങ്ങളുമുണ്ടാകുമെങ്കിലും അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കെട്ടടങ്ങുന്നല്ലാണ്ട് അത് കൂടുതൽ ഒരു വിഷയമാക്കാൻ ഞങ്ങള് രണ്ട് ഇരുവരും ശ്രമിക്കാറില്ല അത് ഞങ്ങക്ക് ഒരു സാമ്യമായിട്ടു തോന്നിയിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ പെട്ടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വന്ന് പെട്ടന്ന് എന്തെങ്കിലും പറഞ്ഞാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പരസ്പരം നോക്കി ചിരിക്കുകയും ഒരു തമാശ രൂപേണ അത് അവതരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നം ലൈഫിൽ പലതും വരും അതങ്ങനെ കാണ കാണണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊരു ഗുണപാഠം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്